നമുക്കെല്ലാം അറിയുന്ന പോലെ നമ്മുടെ അമ്മ ഭാഷയാണ് മലയാളം മലയാളത്തെ നാം ഒരിക്കലും തള്ളി പറയാൻ സാധിക്കത്തില്ല കാരണം മലയാള ഭാഷ ഈ പ്രദേശത്തെ മറ്റു ഭാഷകളെ വികസനത്തെ എങ്ങനെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഈ ചോദ്യത്തിലൂടെ നമുക്ക് പറയാൻ പറ്റുന്ന ഉത്തരമെന്ന് പറഞ്ഞാൽ മലയാള ഭാഷ നമ്മുടെ കേരളത്തിലുള്ളവരെ വളരെയധികം ഉന്നതിയിൽ എത്തിക്കാന് സാധിച്ചിട്ടുണ്ട് കാരണം ഇവ മലയാളത്തിൽ മലയാളം എന്ന ഭാഷ മലയാളികളെ ഒത്തിരിയധികം ഉന്നതിയിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് വിവിധതരം പ്രക്രിയയിലൂടെ കടന്നു പോകുമ്പോൾ മലയാളമാണ് അവർക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ട ഭാഷയെന്ന് നമുക്ക് പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ മലയാള ഭാഷ ഒരിക്കലും ഒരു ബാധ്യതയല്ല അവ എപ്പഴും വികസനത്തിൻ്റെ ഒരു പിന്തുണയായിട്ടുള്ള ഉപായം തന്നെയാണ്